ആ ഇത് ആരായിരുന്നു ആ ഓക്കെ ആ ഓക്കെ എന്താണ് ഇത് സാർ ആവശ്യം ആ ആ

ഓ ഉണ്ട് സാർ അത് നമ്മുടെല് എല്ലാ തരത്തിൽ ഉള്ള വീടുകളും അവൈലബിൾ ആണ് സാർ എങ്ങനത്ത വീട് ആണ് നോക്കുന്നത് രണ്ട് നില വീട് അല്ലേ വാർക്ക വീട് അങ്ങനെ ഏത് തരത്തിൽ ഉള്ള വീട് ആണ് നോക്കുന്നതെന്ന് പറഞ്ഞാൽ മതി ഓക്കെ എത്ര പേര് ഉള്ള എത്ര പേര് ആണ് സാർ വരുന്നത് അഞ്ച് പേർക്ക് പറ്റിയ വീട് ആണോ ആ ഓക്കെ ഇപ്പം എൻ്റെ കയ്യിൽ ഈ അഞ്ച് പേർക്ക് ആ പറ്റിയ വീടിന്ന് പറയുന്നത് ഒര് ടൗണിൽ തന്നെ താമസിക്കാൻ പറ്റുന്ന ഒരു വീട് ആണുള്ളത് ടൗണിനോട് ചേർന്ന് തന്നെ ഒരു വീട് അവിടെ പറയുവാണെങ്കിൽ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് സാറിന് പിന്നെ ഹൗസ്ഹോൾഡ് കാര്യങ്ങൾ ആയിട്ട് എന്താണ് പറയുക ഇപ്പോൾ ഫ്രിഡ്ജ് അങ്ങനെ ഉള്ള കാര്യങ്ങൾ ഒന്നുംപ്രത്യേകിച്ച് കൊണ്ടുതരണ്ട ആവശ്യം ഒന്നും ഇല്ല ഓൾറെഡി എല്ലാ അവടെ തന്നെ ഉണ്ട് അവടെ താമസിച്ചവര് ഇപ്പോൾ ഫോറിനിലേക്ക് പോയത് കൊണ്ട് വീട് വാടകയ്ക്ക് കൊടുക്കുന്ന ആണ് അപ്പം സാറിന് എല്ലാ ഫെസിലിറ്റീസും അവിടെ ഉണ്ട് സാറിന് താൽപ്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് വൺ ഇയർ കോൺട്രാക്ടിലേക്ക് അത് എടുക്കാവുന്നത് ആണ് ആ അതെ സാർ ടൗണിൽ തന്നെ ആണ് ടൗണിൽ തന്നെ ഉള്ള വീട് ആണ് ആ ഓക്കെ അത് സാറിനും പിള്ളേർക്കും ആണേലും പെട്ടെന്ന് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങൾ ആണേലും എല്ലാം ഭയങ്കര എളുപ്പം ആയിരിക്കുമല്ലോ ആ ഓക്കെ സാർ എന്നിട്ട് ഈ വീടുതന്നെ ഫിക്സ് ചെയ്യുവാനോ ഞാൻ വീടിന്റെ കുറച്ച് പിക്സ് സാറിന് വാട്ട്സ്ആപ്പില് വേണമെങ്കിൽ അയച്ചുതരാം സാറ് നോക്കിയിട്ട് ഫാമിലി ആയിട്ട് ഡിസിഷൻ എടുത്ത് എനിക്ക് കൺഫേം ചെയ്ത് പറഞ്ഞാൽ മതി ഇത് ഇപ്പോൾ വൺ ഇയറിലേക്ക് ആയത് കൊണ്ട് സാർ ആദ്യം നമുക്ക് ഇത് എടുക്കുന്ന ടൈമിൽ ഒരു കുറച്ച് ഫണ്ട് പേ ചെയ്യണ്ടതായിട്ട് ഉണ്ട് അതായത് ഒരു ഒരു ഫൈവ് ലാക്ക് ഓൾറെഡി പേ ചെയ്യണം കാരണം പിന്നെ റെൻറ്റിന്ന് പറയുന്നത് മാസം ഫൈവ് തൗസൻഡ് ആണ് വരിക ഫൈവ് തൗസൻഡ് ഇപ്പോൾ അഞ്ച് പേര് താമസിക്കുന്ന വീട് ആയത് കൊണ്ട് ആണ് അത്രയും വരുന്നത് സാർ ഒറ്റ ഒരാൾ ആണെങ്കിൽ അത്ര ഒന്നും വരില്ലായിരുന്നു പിന്നെ ടൗണിനോട് തന്നെ ഉള്ള ചേർന്ന് ഒര് വീട് തന്നെ ആണല്ലോ ആ ഓക്കെ വാട്ട്സ്ആപ്പ് മെയിലിലേക്ക് ഞാൻ വാട്ട്സ്ആപ്പ് ചെയ്യാം സാർ സാറ് നോക്കിയിട്ട് ഇന്ന് തന്നെ കൺഫേം പറയാൻ പറ്റുവെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ വീട് ഒക്കെ ക്ലീൻ ആക്കി അറേഞ്ച് ചെയ്യാവുന്നത് ആണ് ഓക്കെ സാർ എത്ര ദിവസം കൊണ്ട് ആണ് സാർ എപ്പഴാണ് നാട്ടില് ഇവിടേക്ക് വരാൻ ഉദ്ദേശിക്കുന്നത് ആ ഓക്കെ ഓക്കെ ഓക്കെ സാർ എന്തായാലും ഞാന് ഇതിലേക്ക് ഫോട്ടോസ് എല്ലാം വാട്ട്സ്ആപ്പ് ചെയ്തേക്കാം സാറ് തീരുമാനിച്ചിട്ട് പറഞ്ഞാൽ മതി ഓക്കെ സാർ താങ്ക്യൂ